പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരാഗത ഫുഡാണ് സദ്യ സദ്യ പറയുമ്പോൾ പത്ത് ഇരുപത്താറ് ഐറ്റംസ് ഒക്കെ ചേർന്നതാണ് സദ്യ ചോറ് സാമ്പാർ രസം മോര് പിന്നെ എരിശ്ശേരി പുളിശ്ശേരി അവിയൽ തോരൻ പിന്നെ കായ വറുത്തത് ചക്കര ഉപ്പേരി പിന്നെ പായസം മൂന്ന് നാല് തരം പായസം അട

ഗോതമ്പ് അങ്ങനെയുള്ള ഒരുപാട് തരം പായസങ്ങൾ ഉണ്ട് അതേപോലെ പാലക്കാട് ഇപ്പോൾ രാമശ്ശേരി ആണെങ്കിൽ രാമശ്ശേരി ഇഡ്ഡലി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മുടെ ഉണ്ടാക്കുന്ന ഇഡ്ഡലി വെച്ചിട്ട് വലിപ്പം കൂടിയ ഇഡ്ഡലി ആയിരിക്കും പരന്നിട്ട് കട്ടി ഉണ്ടാകില്ല തിക്നെസ്സ് കമ്മി ആയിരിക്കും പരന്ന നല്ല വലിപ്പമുള്ള ഇഡ്ഡലി ആയിരിക്കും നല്ല ടേസ്റ്റ് ഉള്ള ഒന്നാണത് അതേപോലെ ഇപ്പോൾ സദ്യ ആണെങ്കിൽ നമുക്ക് ഓണത്തിനാണ് കൂടുതലും സദ്യ കാണാറ് ഓണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ കല്യാണം അങ്ങനെയുള്ള അമ്പലങ്ങൾ ഇങ്ങനെയുള്ള അവിടെ ഉത്സവങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സദ്യകൾ നമ്മൾ കാണാറ് സദ്യ കിട്ടണമെങ്കിൽ ഹോട്ടലിൽ പോയാലും നമുക്ക് സദ്യ പറഞ്ഞ കിട്ടും വെജിറ്റേറിയൻ ആയാൽ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽസിലോക്കെ പോയാൽ നമുക്ക് നല്ല സദ്യകൾ കിട്ടും പാലക്കാട് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് അവിടെ ഒക്കെ പോയി പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു സദ്യ കിട്ടും ഒരു